സാറേ ഞാൻ എന്റെ വൈദ്യുതി ബില്ല് ആറുമാസത്തേക്കാണ് ബില്ലിന്റെ കണക്കൊന്നെനിക്ക് അറിയാനുണ്ട് ആ കണക്ക് സാറെങ്ങനെയാണ് എനിക്ക് തരുന്നത് എനിക്കൊരത്യാവശ്യ കാര്യത്തിനാണാ ബില്ല് ഞാന് ചോദിക്കുന്നത് പിന്നെ എനിക്ക് അതു വേറെ കാര്യങ്ങള് ചെയ്യാനുള്ളതു കൊണ്ട് ആ ബില്ല് എത്രയും പെട്ടെന്ന് എനിക്ക് തരികയാണെങ്കിൽ അതെന്റെ ഒരു ലോണിന്റെ ആവശ്യത്തിന് കൊടുക്കാനാണാ ബില്ല് ഞാന് ചോദിക്കുന്നത് അതുകൊണ്ട് അ ആ ആറുമാസത്തെ ബില്ല് വൈദ്യുതി ബില്ല് സാറെനിക്ക് തരണം പി എന്ന് എന്നു തരും സാറെ രണ്ടു ദിവസത്തിനകം എനിക്ക് തരുമോ ഞാനാപ്പീസ് പിന്നെ അ ഓഫീസില് വരണോ എങ്ങനെയാണ് ക കറക്റ്റായിട്ട് പറഞ്ഞാല് ഞാന് അതുപോലെ ചെയ്യും എന്റത്യാവശ്യ കാര്യമാണ് നീട്ടി ഇടരുതേ എത്രയും പെട്ടെന്നു തന്നെ എനിക്കത് തന്നു സഹായിക്കണം